മലയാളികൾ മലയാള ഭാഷയെന്ന് പറയുന്നത് സാംസ്കാരികമായ ഒരു ഭാഷയാണ് വളരെ അർത്ഥവത്തായ വളരെ തനിമയുള്ള ഒരു ഭാഷയാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് മലയാളികളെല്ലാം അവരവരുടെ ആഘോഷവേളകളിലാണെങ്കിലും അവരവരുടെ പാരമ്പര്യങ്ങളെ മുൻ നിർത്തിയാണ് അവർ അതെല്ലാം ആഘോഷിക്കുന്നത് ഇപ്പോൾ ഓണത്തിനാണെങ്കിൽ ഓണാഘോഷ വേളകളിലാണെങ്കിൽ മലയാളികളെല്ലാം ഓണപ്പാട്ടുകളെക്കെ പാടി അത് അതിൻ്റേതായ രീതിയിൽ ഓണപ്പാട്ടുകളൊക്കെ പാടിയാണ് ആഘോഷിക്കുന്നത് ഓണത്തിന് വള്ളം ഓണത്തിന് അത്തപ്പൂക്കളം ഇടുകയും ഓണസദ്യ ഓണസദ്യ ഉണ്ടാക്കുകയും ഓണത്തപ്പനെ വരവേൽക്കുകയും ഓണപ്പാട്ടുകളെക്കെ പാടി ഊഞ്ഞാൽ ഊഞ്ഞാലെക്കെ കെട്ടി ഒക്കെയാണ് അവർ ഓണാഘോഷം നടത്തുന്നത് അത് അതിൽ ഓണ ഓണപ്പാട്ടുകളൊക്കെ തനിമയുള്ള മലയാള മലയാളത്തിലാണ് ഓണപ്പാട്ടുകളൊക്കെ രൂപപ്പെടുത്തുന്നതും അത് പാടുന്നതും അത് കേൾക്കാൻ എല്ലാവരും തനിമയുള്ള വസ്ത്രങ്ങൾ ഒരു ഒരു പോലെയുള്ള ഡ്രസ്സ് കോഡൊക്കെ രൂപീകരിച്ചാണ് എല്ലാവരും ഓണം ഓണത്തിന് പാട്ടുകളൊക്കെ ഓണപാട്ടു മത്സരങ്ങളൊക്കെ നടത്തുന്നത് അത് വളരെ തനിമയോടെ തനിമയോടെയാണ് അതിൻ്റെ മലയാളം തനിമയുള്ള മലയാളത്തോടെയാണ് ആ പാട്ടുകളൊക്കെ ചിട്ടപ്പെടുത്തുന്നത് വള്ളംകളിയൊക്കെ മത്സരങ്ങളൊക്കെ വരുംമ്പോഴേക്കും വെള്ള പാട്ട് വഞ്ചിപ്പാട്ട് രൂപീകരിക്കപ്പെടുന്നുണ്ട് അത് ആർപ്പോ ഇർറോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് അറിയാം അതതിൻ്റേതായ ഒരു ഊർജ്ജസ്വലതയെ ഏകീകരിച്ചു ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചിട്ടപ്പെടുത്തി ഇരിക്കുന്നത് ഓരോ പാരമ്പര്യത്തിനും അനുസരിച്ച് തനിമയോടു കൂടി മലയാള ഭാഷ ഏകീകരിച്ച് പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി പണ്ടു മുതലേ മലയാളത്തിലുണ്ട് നാടൻ പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഓരോ സമൂഹത്തിനും ഓരോ ഗോത്ര ഭാഷകൾ ഒക്കെ ഉണ്ട് അതെല്ലാം അതിൻ്റേതായ പാരമ്പര്യങ്ങളെ നിലനിർത്തി കൊണ്ടാണ് ഈ പാപ്പും ഭാഷകളൊക്കെ ചിട്ടപ്പെടുത്തി എടുക്കുന്നത് അത് ഓരോ ഗോ സാംസ്കാരിക ഭാഷാ സംസ്കാരത്തിൽ മലയാളം സംസ്കാരിക ഭാഷ എന്ന് പറയുമ്പോൾ അത് ചിട്ടപ്പെടുത്തി എടുക്കുന്നതിനെയൊക്കെ ഒരു ഏകീകൃതമായ ഒരു ഭാവം ഭാവം ഉണ്ടായിരിക്കും അത് വ്യക്തവും തനിമയും ശുദ്ധവുമായിരിക്കും ശുദ്ധമായ മലയാള ഭാഷയെന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു രീതിയിൽ അതായത് മലയാള ഭാഷ സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചിട്ടയായ രൂപം വൃത്തത്തിലും ഭംഗിയിലും ഒക്കെ രൂപീകരിച്ചു എടുക്കുന്ന ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ അവരവരുടെ ആഘോഷങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ രീതിയിലുള്ള പ്രാദേശികമായ ഓരോ ആഘോഷങ്ങളിലും അവരവരുടേതായ രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ് രൂപപ്പെടുത്തി എടുക്കുന്നത് ആഘോഷ ആഘോഷ വേളയിൽ അവർ വഞ്ചി വള്ളം കളിക്ക് വഞ്ചിപ്പാട്ട് മാർഗം കളിക്ക് അതിൻ്റേതായ ഒരു പാട്ട് കോൽ കളിക്ക് അതിൻ്റേതായ രീതിയിൽ ചിട്ടപ്പെടുത്തിയ പാട്ട് നാടൻപാട്ട് ഓണപ്പാട്ട് അങ്ങനെ ഒരോ ഓരോന്നും അതിൻ്റേതായ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ കുളിർ അണിയിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയും കാര്യങ്ങളുമാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വഞ്ചിപ്പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ വഞ്ചി തുഴയുന്നവരുടെ കൂട്ടത്തിൽ നമുക്കും അത്രയും ഉത്സാഹത്തോടെ കൂടെ നിന്ന് അത് ശ്രവിക്കാനും അത് ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഓണപ്പാട്ട് ഇത്രയും സ്ത്രീകളൊക്കെ എല്ലാവരും ഒരേ പോലെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് മനോഹരമായ രീതിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി ഓണപ്പൂക്കളത്തിനും ചുറ്റും നിന്നു കൊണ്ട് കൈ കൊട്ടി പാടും കൈ കൊട്ടി പാട്ടും ഒക്കെ പാടുന്നത് ആ പാട്ടുകളൊക്കെ എത്ര മനോഹരമായ ഭാഷയിലാണ് ചിട്ടപ്പെടുത്തിയെടുക്കുന്നതെന്ന് കേട്ടാലേ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളു